നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ ആണെങ്കിലും നമ്മുടെ മക്കൾക്ക് പഠനത്തിൽ യാതൊരു കുഴപ്പവും ഇതുവരെയില്ല പിന്നെ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ദൂരേക്ക് പോയി കോളേജിൽ നല്ല കോളേജിൽ ഒക്കെ പോയി ചേരാവുന്നതാണ് അതുപോലെ നമ്മുടെ ആശുപത്രി കാര്യങ്ങൾ ആണെങ്കിലും നമുക്ക് കുറച്ച് പോയാൽ മതി അവിടെ ഒ പി ടിക്കറ്റ് വാങ്ങി മരുന്ന് വാങ്ങി പോരാവുന്നതാണ് പക്ഷേ കിടത്തി ചികിത്സക്ക് ആണെങ്കിൽ കുറച്ച് ദൂരേക്ക് പോവേണ്ടതാണ് പിന്നെ നമ്മുടെ ആരോഗ്യപ്രശ്നങ്ങൾ ആണെങ്കിലും നമുക്ക് വലിയൊരു കുഴപ്പം ഇല്ലാണ്ട് അങ്ങനെ പോണു പിന്നെ നമ്മുടെ ഗ്രാമപ്രദേശം ആണെങ്കിലും വലിയൊരു കുഴപ്പം ആയിട്ടുള്ളൊരു കാലാവസ്ഥ ആയാലും നമുക്ക് ഇല്ല അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഗ്രാമപ്രദേശം അങ്ങനെ ജെ ജീവിച്ച് പോകുന്നു